ഹലോ ആ ഷർട്ട് ഏത് ഏതാണ് ഷർട്ട് വേണ്ടത് ലാർജ് ഉണ്ട് എക്സ് എൽ ഉണ്ട് ഡബിൾ എക്സ് എൽ ഏതായിരുന്നു ഡബിൾ എക്സ് എൽ ഏതാണ് കളർ വേണ്ടത് ഡബിൾ പോക്കറ്റ് ഉണ്ട് പിന്നെ ബാക്കില് പ്രിൻ്റ് വരുന്നത് ഉണ്ട് ഇപ്പോഴത്തെ പുതിയ മോഡൽ ആണോ എങ്ങനെ ബ്രാൻ്റഡ് കമ്പനിയുടെയാണ് ആ ഇപ്പോൾ ഓണം ഓഫർ ഉണ്ട് ഓണത്തിന് എല്ലാവർക്കും ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ ഇതിനെ നമ്മൾ ഡിസ്ക്കൗണ്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഡ്രസ്സ് എടുക്കുന്നില്ലേ ആ ഫാമിലി ആ അതെ അതെ നിങ്ങളുടെ ഷർട്ടിന് അഞ്ഞൂറ് മുതൽ മുളിലേക്കാണ് വരുന്നത് ആ ഇപ്പോൾ സാരി ഒക്കെ ആണെങ്കിൽ അഞ്ഞൂറിന് മുകളിലേക്കുതന്നെ ഒരു രണ്ടായിരം മൂവായിരം ആ റേറ്റിൻ്റെ വരെ വരും അപ്പോൾ കുട്ടികൾക്കുള്ള ഡ്രസ്സിന് അഞ്ഞൂറിന് മുകളിലേക്കാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഓഫറ് വരുന്നത് ഇത്രയും ഒരുമിച്ച് വാങ്ങുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഒരു മുപ്പത് പെഴ്സെൻ്റേജ് ഓഫർ വരെ തരാൻ സാധിക്കും

വേറെയൊന്നുമില്ല ആ ഓക്കെ ഓക്കെ ആ ചേച്ചിക്ക് വേണോ ഏതെങ്കിലും സാരിയോ ചുരിദാറോ ആ അതായത് ഈ ഡ്രസ്സ് കോഡായിട്ടാണോ എടുക്കുന്നത് അല്ലാണ്ട് കോഡാണ് അല്ലെ അപ്പോൾ സാരിയും അതേപോലെ വേണം അല്ലെ ആ ഓക്കെ ഓക്കെ അപ്പം എന്നാൽ ഒരെണ്ണം എടുക്കട്ടെ ഏതാണ് എക്സ് എല്ലാണോ ലാർജോ എക്സ് എൽ അല്ലേ ആ ഓക്കെ ഓക്കെ സാരി ഏതാണ് എടുക്കുന്നത് സാരിയും നോക്കിക്കോളൂ നിങ്ങൾ ബ്രാൻ്റഡ് തന്നെയാണോ വർക്ക് ഇല്ലാത്ത നോക്കിയിട്ട് ഇല്ലെ പിള്ളേർക്കോ ഓക്കെ ആ ഓക്കെ ആ ഓക്കെ ഓക്കെ ആ അപ്പോൾ നമ്മൾ എന്നാൽ അതിൽ എടുത്തിട്ട് പായ്ക്ക് ചെയ്ത് വയ്ക്കട്ടെ ആ മാം ആ ഓക്കെ മാം എപ്പോഴാണ് വരിക എടുക്കാനായിട്ട് ഉച്ച ആകുമ്പോഴാണോ ആ ഓക്കേ ഇവിടെ വന്നിട്ട് പേര് പറഞ്ഞാൽ മതി പേരും ഡീറ്റെയ്ൽസും എല്ലാം അടിച്ച് വയ്ക്കാം ഇവിടെ വന്നിട്ട് ക്യാഷ് ഓൺ ഡെലിവറി ചെയ്താൽ മതി എന്നാൽ ഓക്കെ എന്നാൽ ഓക്കെ മാം നാളെ വന്നാൽ മതി കേട്ടോ രാവിലെ ആ ഓക്കെ ഓക്കെ താങ്ക് യു